ഞാൻ പാലക്കാടു നിന്ന് തിരുവനന്തപുരം വരെ നമ്മളെ വന്ദേഭാരത് ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു അനുഭവമായിരുന്നു ട്രെയിനിലെ യാത്ര നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള സീറ്റുകളും അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ട്രെയിനിനകത്ത് അതുപോലെ ട്രെയിനിൻ്റെ സൗണ്ടും നല്ല രസമായിരുന്നു അധികം സൗണ്ട് ഒന്നുമില്ല ഒരു നല്ലൊരു അന്തരീക്ഷത്തിൽ പോകുന്ന ട്രെയിൻ ആയിട്ട് തോന്നി പിന്നെയെന്നു പറഞ്ഞാൽ അവിടുത്തെ സീറ്റുകൾ നല്ല കുഷ്യൻ ഉള്ള സീറ്റുകൾ ആയിരുന്നു നല്ല സൗണ്ട് ട്രാക്കുകളിലൂടെ പോകുമ്പോൾ മറ്റേ സാധാരണ ട്രെയിനിൽ ഇവിടെ സൗണ്ട് കുറവാണ് നല്ലൊരു മെട്രോ ട്രെയിനിൽ പോകുന്നതിൻ്റെ അത്രയും ഇല്ല എങ്കിലും അതുപോലെ ഒരു ഫീൽ ആണ് ഭാരത് വന്ദേ ഭാരതതിൽ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയത് കൃത്യസമയത്ത് തന്നെ എനിക്ക് തിരുവനന്തപുരത്ത് എത്താൻ പറ്റി ഞാനൊരു കല്യാണത്തിന് വേണ്ടിയിട്ടാണ് തിരുവനന്തപുരം വരെ പോയത് എന്തായാലും നല്ലൊരു അനുഭവമായിരുന്നു ഈ ട്രെയിനിൽ